അങ്ങനെ ആളുകള് പട്ടണങ്ങളില് ജീവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് പങ്കാളികളെ കിട്ടുന്നില്ലെന്നൊന്നും അഭിപ്രായമില്ല അങ്ങനെയുണ്ടാകും ചിലര്ക്ക് അങ്ങനെ എക്സെപ്ഷണൽ കേസ് ഉണ്ടാകാം ഉം ഇപ്പോള് ഇപ്പോഴത്തെ തലമുറ എന്താണെന്നുവെച്ചാല് ടെക്നോളജിക്കലി അങ്ങനെ ഡെവലപ്പ്ഡായൊരു സൊസൈറ്റിയിൽ ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ആരായാലും യുവാക്കളായാലും യുവതികളായാലും ഏത് തലമുറയായാലും ഡെവലപ്പ്ഡ് ആയ ടെക്നോളജിക്കല് ബേസ്ഡായ കുറച്ചൊരു സൊസൈറ്റിൽ ജീവിക്കണമെന്നുള്ളവരായിരിക്കണം ആർക്കായാലും താൽപര്യം പക്ഷേ ചിലരെന്തുണ്ടാകും ഇതേ ഗ്രാമീണ അങ്ങനെ വില്ലേജുകളില് ഗ്രാമീണ സ്ഥലങ്ങളില് അവിടുത്തെ പ്രകൃതിഭംഗി ആസ്വദിച്ച് അവിടുത്തെ തോടുകള് മീൻപിടുത്തം അവിടുത്തെ പ്രകൃതി പൂന്തോട്ടങ്ങള് അവിടുത്തെ ഫലങ്ങള് പൂക്കള് അവിടെയുണ്ടാകുന്ന ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കണം അവിടുത്തെ പൂന്തോട്ടങ്ങൾ നനച്ച് അവിടുത്തെ ചെറിയ വീട്ടില് ചെറിയ വളർത്തു മൃഗങ്ങളൊക്കെയുള്ള ചെറിയൊരു വീട്ടില് അങ്ങനെ നാച്ചുറലായി ജീവിക്കണം പ്രകൃതിഭംഗി ആസ്വദിച്ച് ജീവിക്കണമെന്ന് താല്പര്യമുള്ള യുവാക്കൾ യുവതികളുണ്ടാകാം ഉം അതിനനുസരിച്ച് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും പക്ഷേ അതിനനുസരിച്ച് നഗരത്തിലേക്ക് ജീവിതപങ്കാളികളെ കിട്ടുന്നില്ല എന്നൊന്നും ശരിയല്ല കാരണം ഡെവലപ്പ്ഡായ അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ടെക്നോളജിക്കലി ഡെവലപ്ഡായ നഗരത്തിലേക്ക് പോകാൻ ഏകദേശം ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും ആവശ്യമുണ്ടാകും എന്തായാലും യുവാക്കൾക്ക് എന്തായാലും നഗരത്തില് കുറച്ച് പട്ടണങ്ങളില് ജീവിക്കാനായിരിക്കും താല്പര്യം കാരണം അവരുടെ ജോലിത്തിരക്കുകള് പിന്നെ ടെക്നോളജിക്കലി വേറെ ആവശ്യങ്ങള് എന്നൊക്കെ യുവാക്കൾക്കുണ്ടാകും പക്ഷെ അതുപോലെ ജീവിതപങ്കാളികളായ യുവതികൾക്കും അതുതന്നെയായിരിക്കും ഏകദേശം താല്പര്യമുണ്ടാകുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാത്ത കുറച്ച് യുവതികളുണ്ടാകും അവരുടേതായ സ്വന്തം നാട്ടില് ഗ്രാമങ്ങളില് പുഴകളില് തോടുകളില് അവരുടെ കൂട്ടുകാരോടൊപ്പം പാടത്തും പറമ്പിലുമൊക്കെ മീൻപിടിച്ച് കളിച്ച് അങ്ങനെ രസിച്ച് നടക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് യുവതികളും യുവാക്കളുമുണ്ടാകും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ചാണ് പക്ഷെ അതിനനുസരിച്ച് ഇപ്പോള് ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ചില യുവതികള് നഗരത്തിലേക്ക് മാറാൻ താല്പര്യമുള്ള യുവതികളുമുണ്ടാകും അതൊക്കെ ഇപ്പോള് സാധാരണമാണ് നമ്മുടെ ഈ തലമുറയില് ഇപ്പോള് സാധാരണമാണ് അപ്പോള് നഗരത്തിലുള്ള യുവാക്കൾക്ക് യുവതികളെ കിട്ടുന്നില്ല ജീവിതപങ്കാളികളായി യുവതികളെ കിട്ടുന്നില്ല എന്നൊന്നും അഭിപ്രായമില്ല മറിച്ച് രണ്ടും അതായത് നഗരത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരുമുണ്ട് എന്നാല് ഗ്രാമങ്ങളിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരുമുണ്ട് എന്നാൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് ജീവിതം പങ്കിടാൻ പോകാൻ താല്പര്യമുള്ളവരുമുണ്ട് നഗരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ജീവിതപങ്കാളിയായി പോകാൻ താല്പര്യമുള്ളവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ചാണ് കാരണം സ്വന്തം പ്രകൃതിഭംഗി ആസ്വദിച്ച് നല്ല വായു ശ്വസിച്ച് ജീവിക്കാൻ താല്പ്പര്യമുള്ളവരായിരിക്കും എപ്പോഴും ഈ ഗ്രാമങ്ങളിലുണ്ടാവുക പക്ഷെ ടെക്നോളജിക്കലി അവനവൻ്റെ ജോലി കാര്യങ്ങള് അനുസരിച്ച് ജീവിതം മുന്നോട്ടുപോകാൻ താല്പര്യമുള്ളവരായിരിക്കും എപ്പോഴും നഗരങ്ങളിലുമുണ്ടാവുക